പാചക രീതിയെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ പാചക രീതി ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോള് വളരെ വ്യത്യസ്തമാണ് ഇവിടത്തെ ഫുഡുകളിൽ ഒക്കെ ഉപ്പ് കുരുമുളക് മുളകുപൊടി മസാലകളെല്ലാം അത്യാവശ്യം കൂടുതലാണ് അപ്പോള് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെസ്റ്റേൺ കൾച്ചറിനെ വച്ചുനോക്കുമ്പോള് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ പാചക രീതികൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോഴും മസാലയും അങ്ങനത്തെ കാര്യങ്ങളും ഭക്ഷണങ്ങൾ കൂടുതൽ എമൗണ്ടിലാണ് ഇടാറ് പിന്നെ കൂടുതൽ ചേരുവകളുടെ കാര്യം പറയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാ കറികളിലും നാളികേരം കൂടുതലിടുന്നതു വളരെ ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ മിക്ക കറികളിലും നാളികേരം ഇടാണ്ട് ഉണ്ടാക്കാറില്ല പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം കുറവാണ് കാരണം ശരീരത്തിന് അത്രയും നല്ലതല്ല പഞ്ചസാര ഈ കാരണങ്ങള്കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമെന്ന് പറഞ്ഞാല് വീട്ടില് നാളികേരമാണ് പക്ഷേ കുറച്ച് ഉപയോഗിക്കുന്ന കാര്യം പഞ്ചസാരയാണ്